ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല്